ഇപ്പോൾ കുടുംബത്തിലെ സ്ത്രീകള് കൂടുതലായിട്ടും മത്സ്യബന്ധനത്തിനും കാര്യങ്ങൾക്കൊന്നും പോകാറില്ല അവര് വീട്ടില് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാനും പിന്നെ കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളെ കുട്ടകളിലാക്കി വണ്ടികളില് കയറ്റി വിടാനും തിരിച്ച് തിരച്ച് വേറെ വേറെ മീനുകളെ തമ്മില് തരം തിരിച്ചെടുക്കാനും ഒക്കെ ആണ് കൂടുതലായിട്ടും അവരെ ഉപയോഗിക്കുന്നത് അപ്പം അവര് കൂടുതലും കടലിലേക്ക് ഒക്കെ പോകാത്തതിൻ്റെ കാരണം അവർക്ക് ഇങ്ങനെ ഭാരമുള്ള രീതിയില് അതായത് കടലിൽ നിന്ന് വല ഒക്കെ വലിച്ച് കയറ്റാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും കാര്യങ്ങള് കൊണ്ടൊക്കെയായിരിക്കും അവരെ കൂടുതലായിട്ടും കൊണ്ടുപോകാത്തത് കൂടുതലും ഇതായിട്ട് പോകുന്നത് ആണുങ്ങള് തന്നെയാണ് വളരെ ചുരുക്കം മാത്രമാണ് പെണ്ണുങ്ങള് ഇങ്ങനെ കപ്പലിലും കാര്യങ്ങളിലും ഒക്കെ പോകുന്നത് നമ്മള് കാണുന്നത് മത്സ്യ ബന്ധനത്തിനും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് അപ്പോൾ സ്ത്രീകള് സാധാരണ കടലില് പോകാത്തതിൻ്റെ കാരണം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞത് പോലെ ഇത്തരത്തിലുള്ള പണികളാണ് കൂടുതലും കിട്ടുന്നത് വള്ളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മീന് തരം തിരിക്കാനും അത് കുട്ടകളിലാക്കിയിട്ട് വണ്ടികളില് കയറ്റി വിടാനും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും സ്ത്രീകളെ ഇതിന് ഉപയോഗിക്കുന്നത് അപ്പം അവര് കൂടുതലും കുടുംബത്തില് ഇരുന്ന് ഇതാക്കുകയാണ് സാധാരണ ചെയ്യാറ്